ഡ്രൈവിംഗ് ലൈസൻസസ് ആ ഡ്രൈവിങ് ലൈസൻസിൻ്റെ പ്രൊസീജിയേഴ്സാണോ ആ ഡ്രൈവിങ് ലൈസൻസിന് പ്രൊസീജിയെഴ്സായിട്ട് ആദ്യം നിങ്ങൾ ആധാർ കാഡ് ആധാർ കാഡോ അല്ലെങ്കിലെന്തെങ്കിലും ഐ ഡി കാഡിൻ്റൊരൂ കോപ്പി അങ്ങനെന്തെങ്കിലും കൊണ്ട് വരണം ആധാർ കാഡിൻ്റെ കോപ്പി മതി എന്തേലുമൊരു കോപ്പി മതി പിന്നൊരു ഫോട്ടൊ രണ്ട് ഫോട്ടോയും വേണം കളർ ഫോട്ടോ മതി പിന്നേന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്നതാണോ ഓക്കെ കാറോടിക്കാൻ കാർന് ലൈസൻസെടുക്കുന്നുണ്ടോ അ കാർന് ലൈസൻസെടുക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എണ്ണായിരം രൂപയാണ് വരുന്നത് നമ്മൾ ഡിസ്കൗണ്ടൊന്നുമില്ല അ എന ഇല്ല അങ്ങനെയൊന്നുമില്ല ഇപ്പം എണ്ണായിരം രൂപയാണ് നമുക്ക് വരുന്നത് രണ്ട് കാർനും ബൈക്കിനും കൂടെ ചേർത്തിട്ടാണ് എണ്ണായിരം രൂപ വരുന്നത് വരുമ്പോൾ തന്നെ ആദ്യം ആദ്യത്തെ അടുത്ത ആഴ്ച്ചയിൽ അടുത്ത ആഴ്ച്ച വരുമ്പോൾ അടുത്ത ആഴ്ച്ചയൊന്ന് ഓഫീസിൽ വരണം വന്നിട്ട് ആധാർകാട്ൻ്റെ കോപ്പി ഐ ഡി ആധാർകാഡ്ൻ്റെ എല്ലാ ഐ ഡികാഡ്ൻ്റെ കോപ്പി പിന്നെ ഫോട്ടോ കൊണ്ട് വരണം ഫോട്ടോയും പൈസ അന്ന് വരുമ്പോൾ അന്ന് അന്ന് വരുമ്പോൾ കൊണ്ടെന്നാൽ മതി അ ക്ലാസ് ഏഴ് എട്ട് ദിവസം ഒരു നമുക്കിപ്പം സ്റ്റാൻ്റെഡായിട്ട് കൊടുക്കുന്നത് രണ്ടാഴ്ച്ചത്തെ ക്ലാസാണ് ആ രണ്ടാഴ്ച്ചത്തെ ക്ലാസെന്ന സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന ഒരാഴ്ച്ച അപ്പം നമ്മളെട്ത്തേരും നമ്മൾ എട്ത്തേരും നമ്മളെട്ത്തന്നേ എട്ത്ത്തന്നെ ശേഷമാണ് ഞങ്ങൾക്ക് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ആദ്യം നമ്മൾ ഈ അടുത്താഴ്ച്ച വരുമ്പം ആദ്യം നമ്മൾ അപേക്ഷ കൊടുക്കും ആ അപേക്ഷക്കായിട്ട് നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപ അപ്പത്തന്നെ അടയ്ക്കണം അതിന് ശേഷം ബാക്കി എമൗണ്ട് പയ്യെ പയ്യെ തന്നാൽ മതി ആദ്യം ആയിരത്തഞ്ഞൂറ് മതി ആ ബുക്ക്ണ്ട് ബുക്ക്ണ്ട് നമ്മൾ ഇവിടെന്ന് താങ്കൾക്ക് ഒരു ബുക്ക് തരും നമ്മൾക്ക് ടൈം ലേണേഴ്സ് എക്സാം ആ ലേണേഴ്സ് എക്സാമ് എഴുതാൻ എഴുതാൻ കുറച്ച് സൈൻസൊക്കേണ്ട് സൈൻസ് സിഗ്നൽസൊക്കെണ്ട് അതൊക്കെ അറിയാവുന്നതാണോ ഓക്കെ നമ്മളപ്പോൾ ഇവിടെന്ന് ചെറിയ രണ്ട് ദിവസത്തെ ക്ലാസ്ണ്ടാവും മറ്റേ നമ്മുടെ സയിൻസിനെ കുറിച്ചും സിഗ്മൽ ഓഫ് ലൈൻ ക്ലാസായിരിക്കും ഓഫ് ലൈൻ ക്ലാസ്സസായിരിക്കും ഇവിടെ വെച്ച് തന്നെ ആയിരിക്കും ഓഫീസിൽ വെച്ച് തെന്നെ ആയിരിക്കും ഒൻപത് മണിക്ക് തുടങ്ങും നാല് മണിക്ക് തീരുന്ന രീതിയിലായിരിക്കും അത് നടക്കുന്നത് ഫുഡൊക്കെ ഫുഡൊക്കെ സ്വന്തം എന്താണ് നമ്മൾ ക്ലാസെസ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളു അ പിന്നേന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ പിന്നെ ഫീസ്ൻ്റെ കാര്യം മറക്കരുത് പിന്നെ ഐ ഡികാഡ്ൻ്റെ കാര്യം മറക്കരുത് ആ പിന്നെ ആ സോറി ആ ആധാർക്കാഡോ അല്ലെങ്കിൽ ഐ ഡികാഡ്ൻ്റെ കോപ്പി അല്ലെങ്കിൽ അപേക്ഷ പിന്നേന്ന് പറഞ്ഞാൽ ഇത്രേം കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ ഓക്കെ താങ്ക് യൂ വെൽക്കം